നമസ്കാരം ഗ്രാമീണ അദ്ധ്യാപ രീതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമീണ അദ്ധ്യാപനം ഒന്നും കൂടി കുട്ടികളെ ഗ്രാമീണത്തിലുള്ള കുട്ടികൾ വളരെയധികം സാക്ഷരത നിരക്കിനും മറ്റും പിന്നിലുള്ള കുട്ടികളാണ് അവരെ അധ്യയ അധ്യയ അവരെ അദ്ധ്യാപകർ തങ്ങൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള വിദ്യ വിദ്യാലയങ്ങളെ എല്ലാം മതാടിസ്ഥാനങ്ങളിലുള്ളതോ അല്ലായെന്നുണ്ടെങ്കിൽ പ്രത്യേക സമൂഹങ്ങൾക്കു വേണ്ടി രൂപീകരിക്കപ്പെട്ടതോ ആണ് ഉദാഹരണത്തിന് നായർ സമൂഹത്തിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയ ചില സമുദായങ്ങൾക്കും മറ്റും വേണ്ടിയിട്ടാണ് ഗ്രാമീണ മേഖലയിലുള്ള അധിക വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇന്ന് പല ഗ്രാമങ്ങളിലുള്ള വിദ്യാലയങ്ങളും പൊതുവിദ്യാലയങ്ങളായി മാറിയിട്ടുണ്ട് അവിടെ മുസ്ലിം സ്ത്രീകളും മുസ്ലിങ്ങളും മറ്റും ഒപ്പം ഇരുന്നു പഠിക്കുന്നു ഒ തെ പല ജാതികളിലുള്ള ആളുകളാണ് എല്ലാവരും ഒപ്പം ഇരുന്നു പഠിക്കുന്നു അങ്ങനെ ഇന്ന് സാറിൻ്റെയും മറ്റും ഫലമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു പഠിക്കുകയാണ് ഗ്രാമീണ വിദ്യാലയം മിക്കതും അത് ഗവണ്മെൻ്റിൻ്റെ സർക്കാരിൻ്റെ അവലംബിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടേക്കുള്ള സിലബസ് സിലബസും കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ് അവിടേക്കുള്ള പുസ്തകങ്ങളും കൈകാര്യം ചെയ്യുന്നത് സർക്കാരാണ് എങ്കിലും ഗ്രാമീണത്തിൽ ഗ്രാമീണ ഗ്രാമീണവാസലിൽ പലരും ഇന്നും വിദ്യാഭ്യാസത്തെ ഒരു മുന്നേറ്റത്തിനുള്ള ടൂൾ ആയിട്ടൊക്കെ ആയുധമായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് നഗരത്തിലേക്കു വരികയാണെന്നുണ്ടെങ്കിൽ നഗരത്തിലുള്ള വിദ്യാഭ്യാസം ഏറേ ചിലവേറിയതും അധികവും പ്രൈവറ്റ് ഓറിയൻ്റടും അതുമാണ് ലീസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നഗരങ്ങളെ പോലെ വിദ്യാലയങ്ങളും ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങൾക്കു വേണ്ടി മറ്റും സ്ഥാപിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അവയെ അവയിൽ തങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റും മികച്ച വിദ്യാഭ്യാസം നൽകാനാകുമെന്നുള്ള വിശ്വാസത്തിലാണ് രക്ഷിതാക്കൾ തങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ അവിടെ ചേർത്ത് അവിടെ മതങ്ങൾക്ക് എല്ലാം മറ്റും അതീതമായിട്ട് സയൻസ് മറ്റ് വിഷയങ്ങളും എല്ലാം അവിടെ കൂടുതലായി പ പഠിക്കുന്നു ഇന്ന് ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് ഇള്ള പദവിയിലെത്തിയ അധികം ആളുകളും ഒന്നെങ്കിൽ കഷ്ടപ്പാടു കൊണ്ട് വന്നവരായിരിക്കും അവരിൽ അധികം പേരും അല്ലാത്ത ഗ്രാമീണ ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് കാണാൻ സാധിക്കുകയുള്ളു അവർ അവർ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടും നേടിയെടുത്ത് അവരുടെ സ്വപ്നങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാം നഗര ജീവിതത്തിൻ്റെ ആ ആസ്വാദനത്തിലൂടെയും അഭിരുചിയിലൂടെയും കടന്നു പോയി എങ്ങനെയാണ് ഒരാളുണ്ടാകേണ്ടത് ഇതിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളിലൂടെയെല്ലാം കടന്നു പോയിട്ടാണ് അവർ എത്തുന്നത് ഇതിൻ്റെ മറ്റും അവരിൽ വ്യക്തമായ രീതിയിൽ തന്നെ ദൃശ്യവുമാണ്